ഇപ്പോൾ കാളവണ്ടിയോട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പണ്ട് നടന്നുവന്നിരുന്നൊരു അതൊരു കളിയാണ് കാരണം എന്താണ് വെച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് കാളവണ്ടിയോട്ടം നമ്മളിപ്പോൾ കാളയെ ഫ്രണ്ടിൽ രണ്ട് കാളയുണ്ടാവും ഫ്രണ്ടിൽ അപ്പം അതിന്റെ മുകളിൽ ഒരാൾ കയറി നിന്നിട്ട് കാളയെ ഇങ്ങനെ അടിച്ച് ചളിയിൽക്കൂടെ ഒക്കെ ഓടിക്കുന്ന ഒരു സംഭവാണ് നല്ല രസമാണ് അത് അപ്പം ആ ടൈമിൽ ഈ കൃഷിസ്ഥലങ്ങളിലായിരിക്കും കൂടുതലായിട്ട് ഈ കാളവണ്ടിയോട്ടം നടത്തുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ കാളവണ്ടി ഓട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നെല്ല് പാകിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നെല്ല് കാര്യങ്ങളൊക്കെ കിട്ടും എന്താണ് പറയുക ഇപ്പം നമ്മുടെ മണ്ണ് നല്ല കറക്റ്റ് രീതിയിൽ ഇളകാനൊക്കെ ഈ കാളവണ്ടിയോട്ടം സഹായിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മത്സരം ആക്കുകയും അപ്പം ചെയ്യാം നമുക്ക് നല്ല രീതിയിലുള്ള വിത ഇതും അതായത് കോ കൊയ്യാനും അതായതിപ്പം നെൽകൃഷി നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ആട് ആട് ആടിന്റെ ഇതും കൂടെ ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കോഴിപ്പോര് കോഴിപ്പോരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ട് പൂവൻ കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി നമ്മൾ ബെറ്റ് വെച്ചിട്ട് ആരാണ് ജയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കോഴിപ്പോര് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അതിലൊക്കെ ഞാൻ നല്ല രസമാണ് അതൊക്കെ കണ്ടിരിക്കാനൊരു രസമാണ്